ആ ഹലോ ആ ജിന് ആ ഹലോ ജിൻസി ആണ് ആഹ് ആഹ് ആ നമുക്ക് ആ ആ വെള്ളം കറക്ടായിട്ട് കിട്ടുന്നില്ലായിരുന്നല്ലോ ഇപ്രാവശ്യവും ഡിലെ ആയായിരുന്നു

ആ ആ വേനലായത് കൊണ്ട് ശെരിയാണ് മഴ കിട്ടാത്തത് കൊണ്ട് ഒക്കെ അറിയാം എങ്കിലും സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത് എന്നാലും വെള്ളം തികയുന്നില്ല ഇച്ചിരി കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ

ഞങ്ങൾ ഇച്ചിരി പൈസ കൂട്ടി വേണമെങ്കിലും തരാം കേട്ടോ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക് ഇച്ചിരി പൈസയും കൂടെ കൂട്ടിതന്നാലും നമുക്ക് വെള്ളം അത്യാവശ്യമാണ് അതുകൊണ്ട് എങ്ങനെ എങ്കിലും നമുക്ക് ഇച്ചിരി സംഘടിപ്പിച്ചു തരികയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു

ആ ഇച്ചിരി പൈസ വേണേൽ കൂട്ടി പൈസ വേണേൽ കൂട്ടി തരാവേ ആ ഓ ഹമ്മ്

മ് അത് മനസിൽ ആ അത് മനസിലായി പിന്നെ ആ ശ്രദ്ധിക്കാം കേട്ടോ ശ്രദ്ധിക്കാം എന്നാലും മാക്സിമം നമുക്ക് ഡിലെ വരുത്താതെ എങ്ങനെങ്കിലും ചെയ്തുതരാനായിട് വേറേയും ഫ്രൻഡ്സിൻ്റെ അടുത്ത് നിന്ന് എങ്ങാനും ഒക്കെ കാരണം വെള്ളത്തിന് ഞങ്ങൾക്ക് വേറൊരു സംവിധാനം ഇല്ല ഇപ്പം നിലവിൽ അപ്പോൾ എവിടെ നിന്നെങ്കിലും മ് ഉം

ആ ഞാൻ ഒരു സ്ഥിരം കസ്റ്റമറല്ലെ കാരണം എനിക്ക് ഇപ്പോൾ ഇവിടെ വേറെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ടാണ് അപ്പോൾ ഒന്നു ചെയ്തുതരുവായിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു വളരെ നല്ലതായി കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇനി വേറൊരു ഒരാളെ ആശ്രയിച്ച കഴിയുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ പിന്നെ നമുക്ക് ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് കണക്ഷനും കാര്യങ്ങളും എല്ലാം ഉള്ളത് കൊണ്ട് നമുക്ക് എളുപ്പമുണ്ടല്ലൊ അപ്പോൾ ഇനി വേറൊരു ആളുടെ അടുത്ത് നമ്മൾ ആ പിന്നെ ഈ ഇടയിൽ ഇച്ചിരി വെള്ളത്തിന് ഇച്ചിരി കലക്കൽ അനുഭവപ്പെട്ടായിരുന്നു വെള്ളത്തിന് ഇച്ചിരി കലക്കൽ ആ

ആഹ് എന്നാണെന്ന് അറിയത്തില്ല കേട്ടോ ഇനിയും ടാങ്ക് ടാങ്ക് കഴുകാറുള്ളതാണ് കുഴപ്പമില്ല ആ ആ ഹമ് ആ നോക്കാവേ കഴുകുന്നത് ആണ് പിന്നെ നമുക്ക് ഇനി വേ വേനലൊക്കെ ആയത് കൊണ്ട് അങ്ങനെ വല്ലതും ആണോ വെള്ളംകുറഞ്ഞിട്ട് വല്ലതും ആണോ എന്നറിയത്തില്ല കേട്ടോ ഇനിയത് ഇവിടുത്തെ ഏതേലും പ്രശ്നമാണോ എന്ന് നോക്കിക്കൊള്ളാം എന്നാൽ കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് എന്നായാലും വെള്ളം തരണം കാരണം സ്ഥിരം കസ്റ്റമർ അല്ലെ കാരണം ഞങ്ങളെ ഒഴിവാക്കരുത് കുറച്ച് കുറച്ചും കൂടെ കാരണം പിള്ളേരൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് സ്കൂളിലൊക്കെ പോകുന്നത് കൊണ്ട് വെള്ളം ഇല്ലാതെ വന്നുകഴിയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പിള്ളേർക്ക് എക്സാമൊക്കെ ആയി കാരണം വെള്ളം ഇല്ലെങ്കിൽ കാരണം വേറെ അടുത്ത് നിന്ന് ഒന്നും വെള്ളം വേറെ കിട്ടാനായിട്ടില്ല ആം അതുകൊണ്ട് ആ

ആ ചേട്ടൻ പറഞ്ഞു ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വെള്ളം നമുക്കിങ്ങനെ കിട്ടാതെ വരികയാണേൽ നമുക്ക് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ ആരെയെങ്കിലും നമുക്ക് വേറെ സപ്ലയറെ നമുക്ക് ബന്ധപ്പെട്ടു നോക്കാം എന്ന് ചേട്ടൻ പറഞ്ഞു അപ്പോൾ എനിക്ക് അന്നേരം ഇതുതന്നെ ആണ് എനിക്ക് താൽപ്പര്യം കാരണം നമ്മൾ വർഷങ്ങളായിട്ടിങ്ങനെ പോകുന്നുണ്ട് നമുക്ക് ഇത് കൂടുതൽ കംഫോർട്ടായിട്ട് തോന്നുന്നത് അപ്പോൾ ഇതുതന്നെ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു ആ ആം

ആ അതു കുഴപ്പമില്ല കേട്ടോ കാരണം മാക്സിമം ശ്രദ്ധിച്ചാൽ മതി കാരണം വെള്ളത്തിൻ്റെ ഒരു കുറവ് എന്നാൽ അറിയാമല്ലൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണല്ലൊ ആം ഒരു ആ

ഉം ഉം നമുക്ക് ആ ഒന്ന് രണ്ട് ദിവസമൊക്കെ ഞാൻ ഇച്ചിരി പിടിച്ചുവച്ചൊക്കെ ഉപയോഗിക്കാം പിന്നെ രണ്ടു ദിവസത്തിൽ കുടുതലൊക്കെ നമുക്ക് ഡിലെ വന്ന് കഴിയുമ്പം പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഫുഡ് ഉണ്ടാക്കാനും എല്ലാം ഭയങ്കര വെള്ളം ഇല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലൊ പിന്നെ കടയിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുത്താലും പിള്ളേർക്കൊക്കെ അത്ര നല്ലതൊന്നും അല്ല പിന്നെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് മാക്സിമം ചെയ്തു തരികയായിരുന്നേൽ നമുക്ക് നല്ലതായിരുന്നു കേട്ടോ എന്നാൽ എന്നാൽ ആ എന്നാൽ ശരി ആ എന്നാൽ ശരി കേട്ടോ ആ ഒന്നു ശ്രദ്ധിച്ചാൽ മതി ഓക്കെ താങ്ക്യൂ